നമ്മുടെ പ്രദേശത്തുള്ള നെയ്ത്ത് തുന്നല് അങ്ങനെയുള്ള ആള് പിന്നെ ആ മേഖലകളില് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഫാമിലിയിൽ ആണങ്കിലും നമ്മുടെ നെയ്ബേഴ്സ് ആണങ്കിലും ആ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ തുന്നൽ എന്നുള്ള മേഖലയിലേക്ക് ടൈലറിംഗ് എന്നുള്ള മേഖലയിലേക്ക് പോകാറുണ്ട് എൻ്റെ മദറാണെങ്കിലും ടൈലറിംഗ് പഠിച്ചിരിക്കുന്നത് എൻ്റെ ഉമ്മ അങ്ങനെ തുന്നാനൊക്കെ പോകാറുണ്ട് ഉമ്മയും ഇങ്ങനെ ഓരോ ഡ്രസ്സുകളും പരമ്പരാഗതമായിട്ടുള്ള വിവാഹ ഡ്രസ്സ് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഉമ്മ തയ്ക്കാറുമുണ്ട് ഞാന് അത് ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ചുരിദാറ് അടിക്കാനാണങ്കിലും പാൻറ് അടിക്കാനാണങ്കിലും ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ നല്ല പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിലും നമുക്ക് അതിന് പഠിക്കണം എന്ന് തോന്നിയാലും മാത്രമേ നമുക്ക് അത് പഠിക്കാനും പറ്റോള്ളൂ ഇല്ലാതെ വെറുതെ പോയി ഒന്ന് മെഷീനിൽ ഇരുന്ന് അടിച്ചു നോക്കിയാലൊന്നും ഒന്നും നടക്കുകയൊന്നുമില്ല അങ്ങനെ ഉമ്മയാ ഉമ്മയാണ് പരമ്പരാഗതമായിട്ടുള്ള വിവാഹ ഡ്രസ്സുകള് എൻഗേജ്മെൻറ് ഡ്രസ്സ് അങ്ങനെയുള്ള ഡ്രസ്സുകളാണെങ്കിലും വയസ്സായവർക്കുള്ള ഡ്രസ്സുകള് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഉമ്മയും തയ്ക്കാറുണ്ട്